അപ്പോൾ സംസ്ഥാനത്ത് കലയുടെയും സംസ്കാരത്തിൻ്റെയും പിന്തുണയ്ക്കു വേണ്ടിയിട്ട് സർക്കാർ പലരീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജീവകാരുണ്യ പദ്ധതികൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്കിപ്പം അതായത് ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് ധനസഹായവും കാര്യങ്ങളൊക്കെ നൽകുന്ന പല രീതിയിലുള്ള ചാരിറ്റികളും കാര്യങ്ങളൊക്കെ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജീവ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം കാരുണ്യ എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടറിയും കാര്യങ്ങളൊക്കെ സർക്കാര് വിൽക്കുന്നത് അത് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു വിഹിതം അതായത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അവർ ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി അവരുടെ അതായത് അവരുടെ കാഷിനുള്ള ചെലവിന് വേണ്ടിയിട്ട് അവർ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ സർക്കാർ കൂടുതൽ ആയിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ സർക്കാര് ഇപ്പം കൂടുതൽ ആയിട്ടും ബാങ്കുകളിൽനിന്നും നല്ല രീതിയിലുള്ള വായ്പയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സഹകരണ ബാങ്ക് കേരള ബാങ്ക് അങ്ങനത്തെ ബാങ്കുകളിൽ നിന്നൊക്കെ ട്ടേ നല്ല രീതിയിലുള്ള ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിലാണ് കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മളുടെ കൊച്ചിയിൽ കൊച്ചിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു നഗരസഭയും കാര്യങ്ങൾ ഒക്കെയാണ് കൂടുതലായിട്ടും നല്ല രീതിയിൽ വളർന്നുവരുന്നത് പിന്നെ പ പലരീതിയിലും നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം നല്ല രീതിയിലുള്ള ആൾക്കാര് ഉണ്ട് പലരീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചാ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് ഇഷ്ട്ടം പോലെ ഉണ്ട്